ആ അതേ ആ ആ നമസ്കാരം സാർ എനിക്കൊരു റോയൽ എൻഫീൽഡ് ബൈക്ക് വേണമായിരുന്നു അപ്പൻ്റെ ബെർത്ത് എൻ്റെ ബ്രെദറിൻ്റെ ബെർത്ത് ഡേ വരുന്നുണ്ട് മെയ് ട്വൻടി സെവൻ അപ്പോൾ അതിന് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടീട്ടാണ് അപ്പം അതിൻ്റെ കാര്യങ്ങളും റേയ്റ്റുവൊക്കെ ഒന്നന്വേഷിക്കാൻ എൻക്വയറിക്ക് വേണ്ടി വന്നതാണ്

ഞാനൊരു ഹിമാലയൻ നോക്കാന്നാണുദ്ദേശിയ്ക്കുന്നത് ഹിമാലയനാണല്ലൊ ഇപ്പോന്ന് ഇതായിട്ടുള്ളത് അപ്പം അതിൻ്റെ എങ്ങനെയാണതിൻ്റെ റേയ്റ്റക്കെ വരുക അല്ല നമ്മളേ ഈ എം ഐ ആയിട്ടാണ് ഉദ്ദേശിക്കണത് ഇപ്പം റെഡി സപ്പോസ് റെഡീക്ക്യാഷാണെങ്കിൽ ഇപ്പം എത്രേ ഞാനടക്കേണ്ടത് തരേണ്ടി വരും എങ്ങനാണ് ഡിഫ്ഫറെൻസ് എന്താ അതിൻ്റെ ആ

ആ ആ ആ ആ പോവോ ഇൻട്രസ്റ്റ് വരും ലോ ആ ആ ആണല്ലേ ഓ ഹോ ഹോ അപ്പം ഞാൻ ആ ഈ എം ഐയാണ് നമ്മൾ ഞാനിപ്പം എന്നാൽ ഈ എം ഐ ആയിരിക്കും എന്ന് തോന്നണെനിക്ക് ബെസ്ട് ഓപ്ഷൻ കാരണം നമ്മളിപ്പോൾ ഇത്തിരി അത്രേം എമൗണ്ട് ചിലപ്പോൾ എനിക്ക് പെട്ടെന്നടയ്ക്കാൻ പറ്റീന്ന് വരില്ല ആ അപ്പം ഞാൻ അപ്പം ഞാൻ ഈ എം ഐക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഞാനെന്തൊക്കെ പ്രൂഫാണ് അപ്പം ഞാൻ തരേണ്ടത് കൊണ്ട് വരേണ്ടത്

ആ ആ

ഇല്ല ഇപ്പോഴത്തെ നിലവിൽ ഇല്ല നിലവിൽ ഞാൻ കാഡൊന്നുവെടുത്തിട്ടില്ല ഓ ഇതിന് എക്സ്ട്രാ ഈടാക്കുവല്ലേ കാ ചാർജ്ജ് ഓക്കെ ഓക്കെ ആ അപ്പയിപ്പം ആ അപ്പം നമുക്കിപ്പോൾ ഓക്കെ ഞാനിതക്കെ കൊണ്ട്വരാം പക്ഷേ എനിക്കിപ്പോൾ ഡെലിവെറി ഇപ്പോൾ ആ സമയത്തിന് കിട്ട്വോ ഇപ്പോൾ ഞാനിന്ന് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം മെയ് ഇരുപത്തിയേഴാണ് വരണത് എനിക്ക് വേണ്ടത് അപ്പം അതിന് മുമ്പായ്ട്ട് എനിക്കിത് എത്തിക്കാൻ പറ്റോ എങ്ങനെയാണ് ആ ഇത് നമ്മൾ കൊട് ആണല്ലെ ഓക്കെ ഓക്കെ അപ്പം ഞാനിവിടെ വന്ന് ഓ ശരി ശരി ഞാനിങ്ങോട്ട് ഷോറൂമിൽ വന്നാൽ പോരെ നമുക്കത് എടുത്തിട്ട് ഓക്കെ ആ ഇല്ല ഞാനങ്ങട് വന്നെടുക്കാനാണുദ്ദേശിക്കണത് അപ്പം ഞാൻ വരുമ്പം കൊണ്ടന്നാ പോരെ ഈ പ്രൂഫും കാര്യങ്ങളക്കെ അപ്പം ഞാൻ ഇപ്പം അഡ്വാൻസ്സെന്തെങ്കിലും വേണോ അതിന് മുമ്പ് അഡ്വാൻസെന്തേലും കൊടുക്കാനങ്ങനെന്തേലും ആ മതീല്ലെ ബുക്കന്ന് ചെയ്താൽ മതീല്ലെ ഓക്കെ അപ്പം ഞാനത് വരാം പ്രൂഫൊക്കെ ആയിട്ട് വരാട്ടോ മാം ഓക്കെ ഓക്കെ